ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്നു വരുന്നതാണേ അപ്പം അവിടത്തെ ഇപ്പോഴത്തെ വയനാട്ടിലെ അതായത് നമുക്ക് ടൂർ വരാനായിരുന്നു കുറച്ചുപേർ ഫാമിലിയായിട്ട് വരാൻ വേണ്ടിയാ അപ്പം ഇപ്പോൾ അവിടുത്തെ ക്ലൈമറ്റ് കണ്ടീഷനൊക്കെ എങ്ങനെയാ ആഹാ അതേയല്ലേ ഇപ്പോൾ ഞങ്ങൾക്ക് മഴയായാലും നമുക്ക് പോകാൻ പറ്റുന്ന എന്തെങ്കിലും ഏതെങ്കിലും സ്ഥലങ്ങളുണ്ടോ അവിടെ ആ ഓക്കെ

ഡാമൊക്കെ എങ്ങനെയാ ഡാമൊക്കെ കാണാൻ വരാൻ പറ്റുമോ ഓഹ് ഓക്കെ ആ പാർക്കുകളങ്ങനെ അവിടെ എന്തെങ്കിലുമുണ്ടോ ആഹാ ഓക്കെ ആ ആ ഞങ്ങൾ അതായത് നമ്മൾ ട്രെയിനിലാണെ വരുന്നത് അപ്പം നിങ്ങളുടെ വണ്ടി എന്തെങ്കിലും അവൈലബിൾ ആണോ നമ്മളെ ഒന്നു സ്ഥലമൊക്കെ കൊണ്ടുകാണിക്കാൻ ആ ഓക്കെ അപ്പം ഫുഡിന്റെ കാര്യം പിന്നെ സ്റ്റേ ഒക്കെ എങ്ങനെയാ ആ ഫുഡൊക്കെയോ നല്ല ഹോട്ടലുകൾ അങ്ങനെയെന്തെങ്കിലും ഉണ്ടോ ആ ഓക്കെ ആ നമ്മളെല്ലാവരും വെജിറ്റേറിയനാ അപ്പോൾ നമുക്ക് വെജിറ്റേറിയൻ ഹോട്ടല് ഹോട്ടൽസങ്ങനെ അവൈലബിൾ ആണെങ്കിൽ നല്ലതായിരുന്നു ആ ഓക്കെ ആ ഒക്കെ ഓക്കേ നമ്മളൊരു പത്തുദിവസത്തേക്കുള്ള ടൂറാണേ പത്തുദിവസത്തേക്കായിട്ടാ വരുന്നേ എങ്ങനെ എങ്ങനെ സർ മനസിലായില്ല അല്ലല്ല നമ്മൾ നേരെ അങ്ങോട്ടേക്കാണു വരുക നമ്മൾക്കങ്ങനെ അവിടെ വലിയ പിടിത്തമില്ല അതായത് സ്ഥലങ്ങളെക്കുറിച്ചൊന്നും വലിയ പിടിത്തമില്ല അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വിളിച്ചത് അപ്പോൾ എന്തായാലും നിങ്ങളുടെ അടുത്തേക്കുതന്നെയാണ് വരിക അപ്പോൾ നമ്മൾ വരുമ്പോൾ നിങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യാം ആ ഓക്കേ സർ താങ്ക് യൂ എങ്ങനേ ആ ഓക്കേ എന്നാൽ ഞാൻ വരുന്നതിന്റെ ഒരു രണ്ടുദിവസം മുന്നേ നിങ്ങളെ വിളിക്കാം കേട്ടോ ആ ഓക്കേ സർ താങ്ക് യൂ എങ്ങനേ ആ അതേയതേയതേ ആ ഓക്കേ താങ്ക് യൂ